എൻ്റെ മാതാപിതാക്കളുടെ മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു കാരണം മുന്നത്തെ തലമുറയിലെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഗുരുകുല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെയാണ് നിലവിലുണ്ടായിരുന്നത് അതിനുശേഷം വിദ്യാഭ്യാസ രീതികളും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും മാറി മാറി വന്നിട്ടുണ്ടായിരുന്നു അതിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് പൊതുവേ ആളുകൾ ഒരു പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എങ്കിലും പുരുഷന്മാർ അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള നൈപുണ്യങ്ങളും സ്കില്ലുകളും നേടുന്നതിനുവേണ്ടിയിട്ടുള്ള സാധാരണ വിദ്യാഭ്യാസം മാത്രമാണ് ലഭിച്ചിരുന്നത് മാക്സിമം ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്ന് നാല് ആശാൻ്റെ എഴുത്തുപള്ളിക്കൂടങ്ങൾ അവിടങ്ങളിലൊക്കെ ആണ് അവർ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടായിരുന്നത് അന്നത്തെ ചില അന്നത്തെ കാര്യങ്ങൾ നടന്നുപോകുന്നതിനുള്ള വിദ്യാഭ്യാസം മാത്രമാണ് അവർ നേടിയിരുന്നത് പോകപ്പോകെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം കൂടി വരുന്നതുകൊണ്ടുതന്നെ എൻ്റെ മാതാപിതാക്കൾ അദ്ധ്യാപക ജോലിയിൽവരെ എത്തിച്ചേരുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് അവർക്ക് ലഭിച്ചത് അവരുടെ മക്കളായ ഞങ്ങൾക്ക് അതിനേക്കാളുപരിയായിട്ടുള്ള വിദ്യാഭ്യാസം നേടുന്നതിനും നമ്മളുടെ ജീവിതത്തിൽ ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം അതിന് ഏതാണ് ഇന്നത്തെക്കാലത്തെ സമൂഹത്തിന് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന വിദ്യാഭ്യാസം എന്നെല്ലാം ഏത് പ്രൊഫഷനാണ് നമുക്കതിന് ചേരുന്നത് എന്ന രീതിയിൽ ഒരുപാട് ഹെൽപ്പുകൾ അവർക്ക് നമുക്ക് തരാനായിട്ട് സാധിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ് മുതൽക്കേതന്നെ നമ്മളെ അടുത്തിരുത്തി പഠിപ്പിക്കാനും നമ്മളുടെ ഓരോ ക്ലാസ്സിൽ നമ്മൾ മുന്നേറുന്നതിലൂടെ നമുക്ക് വേണ്ട ഗൈഡുകൾ മാത്രം ഗൈഡുകൾ നൽകാനും പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യാനും നല്ലൊരു മാർക്ക് വാങ്ങി അടുത്തൊരു ക്ലാസ്സിലേക്ക് വിജയിക്കാനും അവരുടെ വിദ്യാഭ്യാസം നമ്മളെ സഹായിച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ജീവിതത്തിനുവേണ്ട ബാക്കി നൈപുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിനുവേണ്ട സ്കില്ലുകൾ ഒരു വ്യക്തി പഠിത്തത്തിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലൂടെയും ശ്രദ്ധ ചെലുത്തണം എക്സ്ട്രാ കലരിക്കുലർ ആക്ടിവിറ്റീസിലും ശ്രദ്ധ ചെലുത്തണം എന്നുള്ളത് മാതാപിതാക്കളുടെ ആ വിദ്യാഭ്യാസത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതായിരുന്നു വെല്ലുവിളികൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല കാരണം മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നതുതന്നെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടില്ല ഒരുപാട് ആൾക്കാർ അവർ പല രീതിയിൽ വിദ്യാഭ്യാസത്തിനു വേണ്ടിയിട്ട് ഹെല്പ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട് ട്യൂഷൻ എടുക്കുന്നതുവഴിയും ഫ്രീയായിട്ട് ട്യൂഷൻ എടുക്കുന്നതുവഴിയും അതുപോലെത്തന്നെ ഓരോ കാലഘട്ടത്തിന് അനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ രീതികളിലൂടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ആ പ്രൊഫഷൻ ഏതാണ് അതാത് കാലത്തെ പ്രൊഫഷൻ ഏതാണ് സമൂഹത്തിനു വേണ്ടിയിട്ടുള്ളത് എന്നിവ തിരഞ്ഞെടുക്കാനും എത്രയും പെട്ടെന്നുതന്നെ ജോലി ലഭിക്കുന്നതായിട്ടുള്ള പ്രൊഫഷൻ ഏതൊക്കെയാണെന്ന് വേർതിരിച്ച് നമുക്ക് വേണ്ടിയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം എന്നു പറയുന്നത് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് ഇന്നത്തെക്കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് കുറഞ്ഞ വിദ്യാഭ്യാസമുള്ള ആളുകൾ വളരെ കുറവാണ് മുൻതലമുറയെ അപേക്ഷിച്ച് വിദ്യാഭ്യാസം കുറവായിരുന്നെങ്കിൽ ഇന്നത്തെ തലമുറയിലെ വിദ്യാഭ്യാസം കുറവുള്ള ആൾക്കാരാണ് ഏറ്റവും കുറവുള്ളത് ഒരുപാട് ആളുകൾ ഒരുപാട് വിദ്യാഭ്യാസം പല രീതിയിലുള്ള ഡിഗ്രികളും മാസ്റ്റേഴ്സ് ഡിഗ്രികളും ഒക്കെ എടുത്ത് നേടിയിട്ടുള്ളതും പലതരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചിട്ടുള്ള ആൾക്കാരുമൊക്കെയാണ് ഇന്നത്തെ തലമുറ അതുകൊണ്ടുതന്നെ വിദ്യാഭ്യാസം ഇന്നത്തെ തലമുറയിൽ വെല്ലുവിളിയായി മാറുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ജോലി ലഭിക്കാനുള്ള ഒരു എല്ലാവരും പഠിക്കുന്നപോലെ എഞ്ചിനിയറിംഗ് ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ പഠിക്കുന്നതുമൂലം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കുറവായിട്ട് വരുന്നുണ്ട്